നോർമലി യൂഷ്വൽ ഡേയ്സിൽ ഒക്കെ ഞാനാണ് എൻ്റെ ഗാർഡനെ നോക്കുന്നതൊക്കെ ചെയ്യല് രാവിലെ രാവിലെ വെള്ളം നനയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരം വെള്ളം നനയ്ക്കും അതിൻ്റെ ഇടയിലുള്ള മറ്റ് പരുപാടികളും ഞാൻ തന്നെയാണ് ചെയ്യല് പിന്നെ ഞാൻ ഇതുവരെ കൂടുതൽ പുറത്ത് നിൽക്കേണ്ട അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒന്നൊ രണ്ടോ ദിവസം എന്നൊക്കെ വച്ചാല് നമ്മള് അത് അങ്ങനെ ഒഴുവാക്കി കുഴപ്പമില്ല നാച്ചുറൽ അല്ലെ അങ്ങനെ നോക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ എന്ന് പറയുന്നത് ഞാന് ഒറ്റയ്ക്ക് അല്ല എൻ്റെ കൂടെ അമ്മയും ഹെല്പ് ചെയ്യാൻ ഉണ്ടാകും സൊ വീട്ടില് പൈക്കളും ഒരുപാട് മൃഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വീട് ഇട്ടിട്ട് ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല അങ്ങനെ പോകാനുള്ള സാഹചര്യം ഇല്ല സപ്പോസ് ഞാൻ ഇല്ല എന്ന് വെച്ചാൽപോലും വീട്ടില് നോക്കാൻ അമ്മ ഉണ്ടാകും ഗാർഡനും കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മയും അനിയത്തിയും ഉണ്ടാകും ഞാൻ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഒക്കെ നോക്കലും കാര്യങ്ങളും ചെയ്യല് സൊ ഞാൻ ഈ കൊറോണ ടൈമിലാണ് ഈ ഗാർഡനിങ് ഒരു ഹോബിയായി എടുക്കാൻ തുടങ്ങിയത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല വഴിയില്ല നമുക്ക് പുറത്ത് ആക്ച്വലി സ്പോർട്സ്മാനാണ് ഫിറ്റ്നസ് ആക്ടിവിറ്റിസാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും നമുക്ക് അതൊന്നും ചെയ്യാൻ ഉള്ള സാഹചര്യം നമ്മുടെ കൊറോണ ടൈമിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസിലേക്ക് ഈ ഗാർഡനിങ് ഗാർഡനിങ് എന്നൊരു ഐഡിയ വരുന്നത് ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് എല്ലാം വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആയാലും ബാക്കിൽ ആയാലും സൈഡിൽ കൂടെ ആയാലും എല്ലായിടത്തും കിട്ടുന്ന ഈ ഫ്ലവർസും ചെടികളും ഒക്കെ അപ്പുറത്ത് നിന്നും ഇപ്പുറത്ത് നിന്നും ഒക്കെ കിട്ടും എല്ലാം നല്ല രീതിക്ക് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് അത്യാവശ്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായം ഉള്ള രീതിയിൽ അതെല്ലാം സെറ്റായിട്ട് വളർന്ന് ഇങ്ങനെ വന്നതാണ് പിന്നെ മഴക്കാലം ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചു നോക്കേണ്ട ആവിശ്യം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വല്ല ഈ നമ്മള് ഔട്ട് സൈഡ് അറ്റാക്ക് വരുന്നത് നോക്കിയാൽ മതി എക്സാമ്പിൾ പറയുക എന്ന് വെച്ചാൽ വീട്ടില് പൈക്കളും ഉണ്ട് അപ്പോൾ പൈക്കളെ ഒക്കെ കൊണ്ട് പോകുമ്പോൾ നന്നായിട്ട് നോക്കിട്ട് വേണം പോകാൻ ഇല്ലാന്ന് വെച്ചാൽ ഇത് ചെടിനെ കേട് വരുത്തും അങ്ങനത്തെ ചില നോക്കാലെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഉള്ളതാണ് വേനൽക്കാലം വേനൽക്കാലം വരുമ്പോൾ വേനൽക്കാലത്ത് ഒക്കെ കമ്മിയായിരിക്കും ഗാർഡൻസ് അത് ഈ മഴക്കാലത്ത് വെക്കുന്നതിൻ്റെ കുറച്ച് പകുതിയൊക്കെയാണ് നമ്മൾ വേനൽക്കാലത്ത് വെക്കാറുള്ളത് കാരണം വീട്ടില് വേനൽക്കാലം ആയാൽ വെള്ളം ഉണ്ടാകില്ല സൊ അതൊക്കെ നോക്കിട്ട് അതൊക്കെ പരിഗണിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ വെള്ളത്തിനും കാര്യത്തിനും നോക്കാൻ പറ്റുന്ന അനുസരിച്ചിട്ടുള്ള ചെടികൾ മാത്രമേ വീട്ടിൽ വെക്കാറുള്ളു അത് ഇപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലാ എന്ന് വെച്ചാലും അവിടെ വേറെ അമ്മയായാലും അനിയത്തിയായലും ബാക്കി നോക്കാറുണ്ട് എല്ലാർക്കും കൂടി ഒരുമിച്ച് വീട് വിട്ട് പോകേണ്ട അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് അത് പറ്റുകയില്ല വീട്ടില് മൃഗങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരിക്കലും പറ്റുകയില്ല സൊ അങ്ങനെ